നമ്മുടെ സ്ഥലത്തിൻ്റേയും സംസ്ഥാനത്തിൻ്റേയും മൊത്തത്തിലുള്ള കലയും സംസ്ക്കാരവും സംരക്ഷിക്കാൻ വേണ്ടി പ്രാദേശിക കലാകാരൻമാർ വളരേ വളരേ കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നാടൻ കലകൾ നിലനിർത്തിക്കൊണ്ടുവരാനും അവയെ കൂടുതൽ ആളുകളിലേയ്ക്ക് കൊണ്ടുവരാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാടൻ കലാരൂപങ്ങൾ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് നാടോടി നൃത്തം അതുപോലുള്ള പല പല നാടൻ പാട്ടുകൾ എല്ലാം തന്നെ വട്ടപ്പാട്ട് കോൽക്കളി ഒക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ആകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രം ആണ് അതായത് ഉപജില്ലാകലോത്സവങ്ങളിൽ മാത്രമാണ് ഇപ്പം ഇങ്ങനെയുള്ള കലകൾ കണ്ടുവന്നിരിക്കുന്നത് ഇതിന്നൊക്കെ ഒരു മോക്ഷം കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാദേശിക കലാകാരൻമാർ വളരെ കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ കഷ്ടപ്പടുന്നുണ്ട് അതിനു നമ്മളും കൂടെ സഹായിക്കണം എന്നുള്ളത് വളരേ വളരെ വളരെ വേണ്ടപ്പെട്ട ഒന്നു തന്നെയാണ്